ആ ഒരു വിനോദത്തിന് ഭേദഗതി വരുത്താറുണ്ട് അല്ലാതെ പുതിയതായിട്ട് ഗെയിംമ് ഉണ്ടാക്കണ്ട കാര്യം ഇല്ല കാരണം നമുക്ക് ഇപ്പം കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഗെയിമുകളുണ്ട് ചെറിയ ഗെയിമുകളുണ്ട് വലിയ ഗെയിമുകളുണ്ട് അതിൽ നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങള് വരുത്തി നല്ല രീതിക്ക് ഇപ്പോൾ ഫ്രണ്ട്സുവായിട്ടക്കെ കളിയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെയൊരിത് അല്ലാതെ നമുക്കിപ്പോൾ പുതിയ ഗെയിംമ് കണ്ട് പിടിക്കണ്ട കാര്യമില്ല കാരണം പണ്ട് തൊട്ടേ ഉള്ള നല്ല നല്ല കുറെ ഗെയിംമ്കളുണ്ട് അതുകൊണ്ട് നന്നായിട്ട് തന്നെ നമുക്കിതാക്കാൻ എല്ലാം പറ്റും അല്ലാതെ നമുക്കിപ്പോൾ പുതിയ ഗെയിം ഇപ്പോൾ കണ്ടുപിടിക്കണ്ട കാര്യമില്ല കാരണം പണ്ടുതൊട്ടേയുള്ള നല്ല നല്ല കുറെ ഗെയിമുകളുണ്ട് അതുകൊണ്ട് നന്നായിട്ടു തന്നെ നമുക്ക് ഇതാക്കാൻ എല്ലാം പറ്റും ഞാനിതുവരെ ആയിട്ട് വേറെ ഗെയിമുകള് കണ്ട് പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല കാരണം ചില സമയത്ത് സ്കൂളിൽ പഠിക്കണ സമയത്ത് കളിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒന്നും ഇല്ല പിന്നെ ഉള്ളതില് ഉള്ളത് നമ്മ നല്ല രീതിക്ക് പ്രയോജനപ്പെടുത്താം അതില് ചെറിയ ചെറിയ വ്യത്യാസങ്ങളില്ലങ്കിൽ അതിൻ്റെ നിയമങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം കൊണ്ട് വന്ന് നല്ല രീതിക്ക് കളിയ്ക്കാൻ കൂട്ടുകാരുമൊത്ത് നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും ഇതെല്ലാം ഒരു നല്ല കാര്യമാണ് അല്ലാതെ വേറെ കുറെ മാറ്റങ്ങളൊന്നും കൊണ്ട് വരേണ്ട ആവശ്യമില്ല